ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിൽ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു പ്ലാസ്റ്റിക്ക് കണ്ടെയ്നർ ഓർഡർ ചെയ്തിരുന്നു ഓൺലൈനിൽ കണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്കത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തത് എനിക്കത് ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയില്ല അതിൻ്റെ കളർ കളറിങ്ങ് ആണ് കളറിലാണെങ്കിലും അതിൻ്റെ ക്വാണ്ടി ക്വാളിറ്റിയിൽ ആണെങ്കിലും ശരിക്കും മോശമായ മോശമായ ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഉള്ള ഒരു ഇതൊന്നും എനിക്കാ കിട്ടിയപ്പോൾ അത് തോന്നിയിട്ടില്ല ആ കണ്ടേയ്നർ ശരിക്കും ഒരു മോശമായിട്ടുള്ള ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത നമ്മള് മുടക്കുന്ന ക്യാഷിന് ഒപ്പം നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നില്ല അത് അപ്പം അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ പ്രോഡക്റ്റ് ശരിക്കും മോശമായിരുന്നു വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു അത്